ഇപ്പോൾ സംസ്കൃത ഭാഷയിൽ നിന്നാണ് മലയാളം ഉത്ഭവിച്ചത് അതുകൊണ്ട് തന്നെ മലയാള ഭാഷയില് ഭയങ്കര സ്വാധീനം ചൊലുത്തുന്ന ഒന്നാണ് സംസ്കൃതം പണ്ട് പരമ്പരാഗത തലമുറയില് സംസ്കൃതത്തിൽ തന്നെ ആയിരുന്നു മലയാളം മലയാളം എന്ന് പറയുന്നില്ല സംസ്കൃതം തന്നെയാണ് അവര് സംസാരിച്ചോണ്ടിരുന്നത് തന്നെ പണ്ടത്തെ എഴുത്തുകാരായാലും കവികളായലും സംസ്കൃത ഭാഷയിൽ തന്നെ ആയിരുന്നു അവരുടെ എഴുത്തുകളും കവികളും പിന്നെ ഈ ഒരാധുനിക കാലഘട്ടത്തിലേക്ക് വന്നപ്പോളാണ് സംസ്കൃത ത്തിനെ നിന്നും മലയാളം തനി മലയാളത്തിലേയ്ക്ക് മലയാളികൾ മാറിയിരിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും സംസ്കൃത ഭാഷാന്ന് പറയുന്നത് മലയാളത്തിൽ ഭയങ്കര സ്വാധീനം ചെലുത്തിയ ഒന്നാണ് ഇതുപോലെ തന്നെയാണ് ഇംഗ്ളീഷ് ഭാഷ ഇംഗ്ളീഷ് ഭാഷാന്ന് പറയുന്നത് നമുക്കൊരു ഹൈ എജ്യൂക്കേഷണലേക്ക് നമ്മളിപ്പം കേരളം വിട്ട് പുറത്തേയ്ക്ക് പോകുകയാണെങ്കിൽ അല്ലെൽ കേരളത്തിൽ തന്നെ ഒരു നല്ല സാലറിയോട് ജോലി കിട്ടണമെങ്കിൽ തന്നെ ഒരു ഇംഗ്ളീച് എജ്യൂ ഇംഗ്ളീഷ് എജ്യൂക്കേഷൻ നമുക്ക് വേണം നമുക്ക് വിവരങ്ങൾ കൈ മാറുന്നതിനും എല്ലാത്തിനും ഒരു ഇംഗ്ളീഷ് ക്വാളിഫിക്കേഷൻ വേ നിർബന്ധമായിട്ടും വേണം കാരണം ഒരു പുറത്ത് ഒരു പുറം നാട്ടിലേയ്ക്ക് പോവുകാണെൽ അവിടുള്ള ആളുകളായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിനും അവിടത്തൊള്ള വിവരങ്ങൾ അറിയുന്നതിനെല്ലാം നമുക്ക് സഹായിക്കുന്നത് ഒര് ഇംഗ്ളീഷ് ഭാഷയാണ് അതുകൊണ്ടു തന്നെ ഇംഗ്ളീഷ് ഭാഷ് ഭാഷയെ മലയാളികളെ ഒത്തിരി രീതിയില് സ്വാധീനിക്കുന്നുണ്ട്